കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ലയാണ് നമ്മുടെ കാസർഗോട് അതായത് ഏറ്റവും അവസാനമായി രൂപീകൃതമായ ജില്ലയാണ് നമ്മളെ കാസർഗോട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നമ്മുടെ കാസർഗോട് രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിനാണ് നമ്മുടെ കാസർഗോട് ജില്ല രൂപീകരിച്ചത് അതിനു മുമ്പ് ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു ഈ കാസർഗോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷമാണ് കാസർഗോടെന്ന പുതിയൊരു ജില്ല രൂപീ രൂപീകരിച്ചത് തന്നെ അതായത് സപ്തഭാഷാസംഗമഭൂമി എന്നാണ് നമ്മുടെ കാസർഗോട് അറിയപ്പെടുന്നത് അതായത് വിവിധ ഭാഷാവൈവിധ്യമുള്ളൊരു ഇത് ജില്ലയാണ് നമ്മുടെ കാസർഗോട് പല തരത്ത് പല പല വൈവിധ്യമുണ്ട് നമ്മുടെ നാടിന് അതേപോലെ തെയ്യങ്ങളുടെ നാട് കൂടിയാണ് നമ്മുടെ കാസർഗോട് എന്ത് തന്നെ ആയാലും നമ്മുടെ കാസഗോട് എല്ലാ തരത്തിലും പല സ്ഥലങ്ങളിലും അവഗണി അവഗണിക്കപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ജീവിതത്തെ ഈ കാസർഗോട് എന്നുള്ള പേര് ഭയങ്കരമായി ബാധിക്കുന്നു ഒരുപാട് അതിപ്പം എന്ത് തരത്തിലായാലും ക്ഷേമ പദ്യ പദ്ധതികളായാലും വികസന പദ്ധതികളായാലും ഒരു ഒരുപാട് അവഗണനകൾ നമ്മുടെ കാസർഗോട് ഇന്നും നേരിടുന്നുണ്ട് എന്ത് പദ്ധതി പുതിയതായിട്ട് കൊണ്ട് വരികയാണെങ്കിലും ഏറ്റവും അവസാനം എത്തുന്നത് കാസർഗോട് ജില്ലയിലാണ് അത് കാസർഗോട് ജില്ലക്ക് കിട്ടിയാൽ തന്നെ ഭാഗ്യമാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരവസ്ഥയാണ് കാസർഗോട് ജില്ലക്ക് എപ്പോഴും അതിപ്പോൾ എന്ത് ഇതാണെങ്കിലും ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത് കാസർഗോട് തന്നെയാണ് എൽ ബി എസ് കോളേജ് ഓഫ് എൻജിനീയറിങ്ങ് അത് ഏകദേശം ഇരുപത്തഞ്ച് ഇപ്പം അതെങ്കിൽ ഒരു മുപ്പത് കൊല്ലത്തിൽ അധികമായി ആ കോളേജ് ഇതുവരെ ആ കോളേജ് ഒരു ഗവൺമെൻറ് എൻജിനീയറിങ്ങ് കോളേജാക്കി മാറ്റാനുള്ള ഒരു നടപടിയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ ഈ കാസർഗോട് ജില്ലയിൽ ഒരു ഗവൺമെൻറ് എൻജിനീയറിങ്ങ് കോളേജ് പോലും ഇല്ല എന്നുള്ളത് വളരെ എന്ത് വിവേചന വേദനാജനകമായൊരു കാര്യമാണ് കാരണം ഒരു ഒരു ഒരു എൻജിനീയറിങ്ങ് കോളേജ് പോലും സ്വന്തമായി ഈ കാസർഗോട് ജില്ലക്കില്ല അതുപോലെ തന്നെയാണ് ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാര്യമായാലും മെഡി ഒരു സ്വന്തമായൊരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തൊരു ജില്ലയാണ് കാസർഗോട് എത്രയോ തവണ എയിംസിനായിട്ടുള്ള ഇത് നിവേദനങ്ങൾ കൊടുത്തിട്ടും ഇതുവരെ കാസർഗോടിന് ഒരു തരത്തിലുള്ള പരിഗണന പോലും ലഭിച്ചിട്ടില്ല ഒരുപാട് ആശുപത്രികൾ സ്വന്തമായുള്ള ജില്ലകൾക്കാണ് ഇപ്പോഴും അതിനുള്ള അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോവേണ്ട എന്താവശ്യമായാലും നമ്മളധികവും പോകുന്നത് മംഗലാപുരത്താണ് ഓരോരോ സംസ്ഥാനത്തെയാണ് കാസർഗോടത്തെ നാട്ടുകാരെപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് അത് സ്വന്തമായൊരു ഒരു സ്വന്തമായൊരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് ഒന്നുകിൽ മാംഗ്ളൂര് അല്ലെങ്കിൽ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് എന്നിവയാണ് ഈ കാസർഗോട് ജില്ലക്കാർ ആശ്രയിക്കുന്നത് അവർക്ക് വേറൊരു വഴിയില്ല വേറൊരു മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ ഇത് മാത്രമേ സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജില്ല നമ്മുടെ നാട്ടുകാർക്ക് അതുപോലെ തന്നെയാണ് വേറെ ഇപ്പം എന്ത് പദ്ധതികളിലാ പദ്ധതികളായാലും അങ്ങനെ തന്നെയാണ് അധികവും പണിഷ്മെന്റ് ട്രാൻസ്ഫെറുകൾ വരുന്നത് നമ്മുടെ നാട്ടിലേക്കാണ് എന്ത് തരത്തിലായാലും പണിഷ്മെന്റ് ട്രാൻസ്ഫെറ് വരുമ്പം അവരെന്തെങ്കിലും ചെയ്തിട്ടാണല്ലോ അവരെ ഈ നാട്ടിലേക്കയക്കുന്നത് അതായത് എല്ലാവർക്കും കൂടിയുള്ളൊരു തടവറ എന്നുള്ള രീതിയാണ് കാസർഗോടിനെ കാണുന്നത് ഒരു വികസന പദ്ധതികളായാലും ഏറ്റവും മെല്ലെയാണ് കാസർഗോട് എല്ലാം കൊണ്ട് വരുന്നത് അതിൽ ജനനേതാക്കളിൽ നിന്നുള്ള പിന്തുണ വളരെ മോശമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള പിന്തുണയും വളരെ മോശമായ രീതിയിലാണ് കാസർഗോട് എന്നും അവഗണിക്കപ്പെടുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ പിന്നേയും പിന്നേയും മാറി വരുന്നുണ്ട് അത് കാസർകോട്ടെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഫലമായി ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കാസർഗോട് വരുന്നുണ്ട് ഒരുപാട് പദ്ധതികൾ കാസർഗോടുകാരുതന്നെ നേരിട്ട് ശ്രമിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ട് വരാൻ നമ്മുടെ ജനങ്ങൾ തന്നെ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ജനപ്രതിനിധികൾ അതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നുമുണ്ട് അതിപ്പം കാസർഗോട് അതിന് എല്ലാത്തിലും വേറെതന്നെ ഒരു വർധന എന്ത് തന്നെ ആയാലും ഓരോ ഫീസിലും കാസർഗോട് ആവുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് ഇത് ഏത് പദ്ധതിക്ക് അനുമതി കൊട് കൊടുക്കുമ്പം ആണെങ്കിലും അത് കാസർഗോടാണെങ്കിൽ പ്രത്യേകം ഒന്ന് നോക്കീട്ട് മാത്രമേ ഒരനുമതി കൊടുക്കുന്നുള്ളൂ ഇതിപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നായാലും എവിടുന്നോ കാസർഗോടിന് ഒരു അവഗണന തന്നെയാണ് എപ്പോഴും കിട്ടീട്ടുള്ളത് എന്നാലും ജനങ്ങളുടെ ഇടപെടലിൻ്റെ ഫലമായി ഇത് ബദലായി ഒരുപാട് കാര്യങ്ങളിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അതിന് ഒരുപാട് പേരുടെ ഇത് അഹോരാത്ര പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത് എന്തായാലും കാസർഗോട് ഇനിയും ഒരുപാട് വികസന പദ്ധതികൾ വരുമെന്ന് നമ്മളുടെ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരണം കാസർഗോട് മറ്റ് ജില്ലകളെപോലെ തന്നെ മുൻപന്തിയിൽ നിൽക്കണമെന്ന് നമ്മുടെ നാട്ടുകാർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് എഞ്ചിനിയറിങ്ങ് കോളേജ് അനിവാര്യമാണ് അതേപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജും കാസർഗോടിന് ഇപ്പോൾ അനിവാര്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഇപ്പോൾ വന്ദേഭാരത് ട്രെയിനെടുത്താൽ തന്നെ ഏറ്റവും കാസർഗോടിന് സ്റ്റോപ്പ് കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു കാസർഗോടിന് സ്റ്റോപ്പേ ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഒരുപാട് പ്രതിഷേധം നടത്തിയതിന് ശേഷമൊക്കെയാണ് കാസർഗോടിന് ഒരു സ്റ്റോപ്പ് അനുവദിച്ചത് അതായത് എന്ത് തരത്തിലായാലും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലായാലും കാസർഗോടിനെപ്പോഴും ഒരു അവഗണന ഉണ്ട് അപ്പോൾ ഇതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴെങ്കിലുമായി കാസർഗോടിനെപ്പോഴും ഒരു മുൻപന്തിയിൽ നിൽക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു